നീ ഒരു ദിവസം അച്ഛനുമായിട്ട് ഫ്രണ്ട്സിനേയും കൂടി കൂട്ടി കടലിൽ പോയ ഒരു കാര്യം പറഞ്ഞില്ലേ അതിനെക്കുറിച്ചൊന്ന് പറയാമോ ആ അതിനെക്കുറിച്ച് പറയാമല്ലോ ഞങ്ങൾ ഇവിടുത്തെ ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് മത്സ്യബന്ധനത്തിനായി പോകുന്നത് ഞങ്ങൾ ഒരു അഞ്ച് പേരടങ്ങുന്നൊരു സംഘമാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ തങ്കൽ വള്ളമെന്നാണ് അറിയപ്പെടുന്നത് ആ പോകുന്ന ഒരു വള്ളത്തിൻ്റെ പേരാണ് തങ്കൽ വള്ളം തങ്കൽ വള്ളമെന്ന് പറയുമ്പോൾത്തന്നെ നമ്മൾ അഞ്ച് അഞ്ച് ടു ഏഴ് ദിവസം വരെ നമ്മൾ കടലിൽ തങ്ങിക്കിടന്നാണ് മീൻ പിടിക്കണത് അത് ചെറിയ മീനുകളൊന്നുമല്ല നമ്മൾ പിടിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് വലിയ കേരച്ചൂരകളും വലിയ സ്രാവുകളും കട്ടക്കൊമ്പനും ഇമ്മാതിരിയുള്ള വലിയ വലിയ മീനുകളാണ് ഞങ്ങൾ മെയ്നായിട്ടും പിടിക്കണത് ഈ അഞ്ച് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസം ഈ ഒരു കടലിൽ കിടക്കുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടെന്ന് പറയുമ്പം കുളിക്കാൻ പറ്റത്തില്ല എന്നു വച്ചാൽ മൊത്തം ഉപ്പ് വെള്ളത്തിലാണ് കുടിക്കാൻ ഞങ്ങൾ ഇവിടെ നിന്ന് വെള്ളം കരയിൽ നിന്നാണ് കൊണ്ടുപോവുന്നത് പിന്നെ ആദ്യമായിട്ട് പോകുന്നൊരു വ്യക്തിയാണെങ്കിൽ അയാൾ ഒരുപാട് ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെയാണ് കടന്നുപോകേണ്ടി വരുന്നത് മത്സ്യബന്ധനമെന്ന് പറയുന്ന ഒരു തൊഴിൽ തന്നെ ഭയങ്കര കഷ്ടം പിടിച്ചൊരു തൊഴിലാണ് ഏത് സമയത്തും എന്തും സംഭവിക്കാൻ പറ്റുന്നൊരു തൊഴിലാണ് നമ്മുടെ ജീവിതത്തിന് അല്ലെങ്കിൽ നമ്മുടെ ജീവനൊരു ഉത്തരവാദിത്വമില്ല കടലിൽ പോയിക്കഴിഞ്ഞാൽ എന്തും സംഭവിക്കാം കാറ്റോ മഴയോ വെയിലോ ഈ എല്ലാ ഘട്ടത്തിലും നമ്മൾ കടലിൽ തന്നെ ആയിരിക്കും അത് ഓപ്പണായിരിക്കും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല വലയെറിഞ്ഞ് മൂന്ന് മൂന്നര മണിക്കൂർ നമ്മൾ വെറുതെ ഇരിക്കണം വേറെ കപ്പലോ വല്ലതും വരുന്നുണ്ടോയെന്ന് നോക്കിയിരിക്കണം അങ്ങനെ കപ്പൽ നമ്മളെ വള്ളത്തെ ഇടിക്കാൻ വല്ലതും വരുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം ഈ വലകൾ അതിൻ്റെ കപ്പലിൻ്റെ എഞ്ചിന് തട്ടി അറ്റു പോകാൻ ചാൻസുണ്ട് അപ്പം അതു നമ്മൾ ശ്രദ്ധിക്കണം അവരെ ദിശ മാറ്റി വിടാനുള്ള ഒരിത് നമുക്കുണ്ടാവണം മാത്രമല്ല ഈ അഞ്ച് ദിവസം തൊട്ട് ഏഴു ദിവസം വരെ കടലിൽ കിടക്കുമ്പോൾ ആഹാരം അതൊരു പ്രധാനപ്പെട്ടൊരു സംഭവമാണ് അപ്പം അതിനായിട്ടുള്ള പച്ചക്കറികളും അരികളും അങ്ങനത്തെ സാധനങ്ങളെല്ലാം കരയിൽ നിന്നാണ് വാങ്ങിച്ചിട്ട് പോകുന്നത് പിന്നെ ഏഴു ദിവസവും അവിടെ നമ്മൾ ഉണ്ടാക്കിയാണ് കഴിക്കേണ്ടത് മീനിൻ്റെ ലഭ്യത ഉള്ളതുകൊണ്ട് കടലിൽ നിന്ന് മീന് കിട്ടുമ്പം അതിൽ നിന്നൊരു ഒരു മീനെടുത്ത് ഇവിടെ കഴിക്കുന്നവർക്ക് ആഹാരത്തിന് കൂട്ടാറുണ്ട് പിന്നെ തലേന്നത്തെ ചോറ് പച്ചവെള്ളത്തിലിട്ട് കഞ്ഞിയാണ് കൂടുതൽ പേരും കുടിക്കണത് അല്ലാതെ വീട്ടിലുണ്ടാക്കുന്ന സ്വാദിഷ്ടമായ അപ്പമോ പുട്ടോ അതൊന്നും നമുക്കവിടെ ഉണ്ടാക്കാൻ പറ്റില്ല എന്നു വച്ചാൽ നമ്മൾ തങ്കൽ വള്ളത്തിലാണ് പോണത് അത് ഓപ്പണാണ് അപ്പം ഒരു ഗ്യാസടുപ്പിൽ ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് കഞ്ഞിയാണെല്ലാവരും കുടിക്കുന്നത് പിന്നെയെന്ന് പറയുമ്പം ഈ വള്ളത്തിൽ കിടക്കുമ്പോഴുള്ള വേറൊരു ബുദ്ധിമുട്ട് എന്നു പറയുമ്പം ആദ്യമായിട്ടൊരു വ്യക്തി വള്ളത്തിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ വള്ളത്തിൻ്റെ കുലുക്കം കാരണവും ആ വളളത്തിലെ സ്റ്റോറേജിൻ്റെ സ്മെല്ല് പിടിക്കാതെ വരുമ്പോഴും നമുക്ക് ആദ്യമായിട്ട് പോകുന്ന ആ വ്യക്തിക്ക് ശർദിക്കാനുള്ളൊരു ഒരു ഓക്കാനിപ്പ് വരും അപ്പോൾ ആ വ്യക്തിയെ അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിലായിരിക്കും ആഹാരമോ ഒന്നും കഴിക്കാൻ പറ്റില്ല കഴിച്ചാലും അങ്ങ് ഇറങ്ങത്തില്ല പിന്നെ ഈ ബാത്റൂമിൽ പോകേണ്ടതെല്ലാം ഓപ്പണായിട്ടാണ് പോകേണ്ടത് അവിടെ കക്കൂസോ അങ്ങനെയൊന്നുമില്ല ഫെസിലിറ്റീസ് പിന്നെ ആഹാരം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ടാക്കി കഴിക്കുക അല്ലാണ്ട് കടകളോ ഒന്നുമില്ല അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഏഴു ദിവസം നമ്മൾ വല വച്ച് കിട്ടുന്ന മീനാണ് ഈ ഹാർബറുകളിൽ കൊണ്ടു വിൽക്കുന്നത് ഹാർബറിൽ തിരിച്ച് വരുമ്പോഴത്തേക്കും ഈ ഓയില് ഈ ഈ വള്ളത്തിൽ നമ്മൾ ഏഴ് ദിവസം കടലിൽ തങ്ങണമെങ്കിൽത്തന്നെ ഒരു നല്ല രൂപ ചിലവുണ്ട് ആഹാരം നോക്കണം ഓയില് നോക്കണം എണ്ണ നോക്കണം ഓയിലും എണ്ണയും രണ്ടും രണ്ടാണ് ഇത് നോക്കണം പിന്നെ ഐസ് പിടിച്ചിടണം മീൻ കേടാകാതിരിക്കാനുള്ള ഐസ് പിന്നെ ഈ ഗ്യാസ് ഗ്യാസ് സിലിണ്ടറ് ചിലപ്പോൾ കൊണ്ടുപോകേണ്ടി വരും പിന്നെ വലയുടെ ചിലവ് വല ചിലപ്പോൾ കടലിൽ ഒഴുക്കോ അങ്ങനെ അടിയൊഴുക്കോ അല്ലെങ്കിൽ ഞണ്ടോ അങ്ങനെയൊക്കെ വന്ന് കഴിഞ്ഞാൽ വലയിൽ വലയ്ക്കും പണി വരും അപ്പോൾ ആ പണി നമ്മൾ ചെയ്യേണ്ടി വരും അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു നല്ലൊരു തുക തന്നെ ഇതിന് വേണ്ടി വരും പിന്നെ മീനൊന്നും കിട്ടാതെയാണ് കടലിൽ നിന്ന് കരയിലോട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ ആ വള്ളം വള്ളത്തിൻ്റെ ഉടമസ്ഥനുണ്ടാകുന്ന നഷ്ടം അത് ഭയങ്കര വലിയ നഷ്ടമാണ് അത് ഇനി അടുത്തപ്രാവശ്യം അയാൾ കടലിൽ പോയിട്ട് വരുമ്പോൾ വല്ലതും കിട്ടിയാലേ അയാൾക്കത് നികത്താൻ പറ്റത്തുള്ളു മാത്രമല്ല ഇനി കൂലിക്കാർക്ക് കൂലി കൊടുക്കണം അഞ്ച് പേരിൽ പോകുന്ന വളളത്തിൽ ബാക്കി നാലു പേർക്കും മീനില്ലെങ്കിലും ബാക്റ്റ പൈസ എന്നു പറഞ്ഞിട്ട് ഒരഞ്ഞൂറ് രൂപയെങ്കിലും കൊടുക്കണം മീനുണ്ടെങ്കിൽ ഉള്ളതിൽ ഒരഞ്ചിൽ ഏഴ് പങ്കാക്കി രണ്ട് പങ്ക് ഓണറിനും മൂന്ന് പങ്ക് ബാക്കിയുള്ളതാണ് നമ്മുടെ കൂലിക്കാർക്കും കൂടെ കൊടുക്കുന്നത് അങ്ങനെയൊരു കാര്യം ഇവിടെയുണ്ട് പിന്നെ എപ്പോഴും മത്സ്യത്തൊഴിലാളികൾക്കും മീൻ കിട്ടണമെന്ന് നിർബന്ധമില്ല അവർ മീനന്വേഷിച്ച് പോവും മീനിൻ്റെ ലഭ്യത ഉള്ള സ്ഥലത്ത് പോകും അവിടെ നിന്ന് കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ അതുപോലെ തിരിച്ചു വരണം ഇത് ജീവനും ഒരു ഉത്തരവാദിത്വമില്ല അതുപോലെ തന്നെ കിട്ടുന്ന മീനിനും നമ്മൾ ഉദ്ദേശിക്കുന്നപോലെ തന്നെ കിട്ടണമെന്നും ഒരു ഉത്തരവാദിത്വമില്ല അതാണ് ഇവിടുത്തെ മെയിൻ കാര്യം പിന്നെയെന്ന് പറയുമ്പോൾ ആൾക്കാർ ചിലരൊക്കെ വലിയ കടലിൽ അല്ലെങ്കിൽ ആനിയാടി സീസൺ ആനിയാടി സീസൺ എന്നു പറയുമ്പം എന്ത് പറയും ജൂൺ ജൂലൈ മാസത്തെ മഴയിലും കാറ്റിലും കടൽ ഭയങ്കര കോപിതമായിരിക്കും അപ്പം ആ ഒരു സമയത്ത് കടലിൽ എല്ലാ മത്സ്യബന്ധനത്തിൽ പെടുന്നവരും ആദ്യമൊക്കെ പോകാറുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഓഖിക്ക് ശേഷം ആൾക്കാർക്ക് ചെറിയ ഭയം വന്നു തുടങ്ങിയതിന് ശേഷം കുറച്ച് പേർ വലിയ കടലും കാറ്റും കോളൊക്കെ പേടിച്ച് പോകാറില്ല അപ്പം അവരുടെ ജീവിത മാർഗ്ഗവും വഴി മുട്ടി നിൽക്കുന്ന അവസ്ഥയുണ്ട് പക്ഷേ രണ്ടും കൽപ്പിച്ച് പോകുന്ന ഒരുപാട് പേരുണ്ട് അപ്പം ഇപ്പോഴത്തെ ജി പി എസ്സും അങ്ങനത്തെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും ടെക്നോളജിയൊക്കെ വന്നതുകൊണ്ടിവർക്ക് പിന്നെ സീന് വലിയ കുഴപ്പമില്ലെന്ന് പറയുന്നെങ്കിലും ബുദ്ധിമുട്ടാണ് കടലിലെ ജീവിതമെന്ന് പറയുന്നത് ആ വെള്ളത്തിലെ ജീവിതം അതത്ര എളുപ്പമല്ല ചൂടെങ്കിൽ അതിലും അത്രമാത്രം ചൂടേൽക്കണം മഴയാണങ്കിൽ ആ മഴയത്ത് നിന്ന് തന്നെ ജോലി ചെയ്യണം പിന്നെ കാറ്റാണെങ്കിൽ അതിനനുസരിച്ച് വള്ളം ഓടിക്കണം വള്ളം കരയ്ക്കെത്തിക്കണം അങ്ങനെയാക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ വള്ളക്കാർ വളളത്തിൽ ഒരുപാട് ഇത്ര ദൂരം കിലോമീറ്ററുകൾ കടന്ന് ദിവസങ്ങൾ സഞ്ചരിച്ചാണ് ആഴക്കടലിലെത്തുന്നത് അവിടെ എല്ലാ വള്ളങ്ങളും ഒന്നിച്ചല്ല എത്തുന്നത് കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസിലാണ് ഓരോ വള്ളങ്ങളും കിടക്കുന്നത് ഓരോ ബോട്ടുകളും എന്തൊക്കെ മീൻ പിടുത്തതിന് ആവശ്യമായതായാലും എല്ലാം ഉള്ളിലാണ് കിടക്കുന്നത്

അപ്പം അതും ഒരു വലിയ ഭയാനകമായൊരു സാഹചര്യമാണ് പക്ഷേ ഒരുപാട് പേരത് ചെയ്യാറുണ്ട് ഒരു ആഴക്കടലിൽ ഏതൊക്കെ രീതിയിലുള്ള മത്സ്യങ്ങളാണുള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഏയ് ഇനി ഏത് സമയത്തും എന്തും സംഭവക്കാവുന്ന ഒരു അവസ്ഥയാണ് മത്സ്യ തൊഴിലാളികളുടെ അവസ്ഥ പിന്നെ അത് മാത്രമല്ല ഇത്രയും ദൂരം യാത്ര ചെയ്ത് അവിടെ പോകുമ്പോഴായിരിക്കും കാറ്റോ കോളോ വരുന്നത് അപ്പോൾ അവർക്കതുപോലെ തിരിച്ച് വരേണ്ടി വരും അത് ഒരു വലിയ നഷ്ടത്തിലോട്ടാണ് നയിക്കുന്നത് പിന്നെ ഈ ആനയടി സമയം ഈ മഴയുള്ള സമയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ മഴയത്ത് റൈൻ കോട്ടോ ജാക്കറ്റോ ഒന്നുമില്ലാതെയാണ് മത്സ്യത്തൊഴിലാളികൾ മത്സ്യ ബന്ധനം ചെയ്യുന്നത് ഒരു പ്ലാസ്റ്റിക്ക് കവർ മാത്രം മൂടിയിട്ട് കൊണ്ടാണവർ ചെയ്യുന്നത് ആ പ്ലാസ്റ്റിക്ക് കവറിൽ നിന്ന് വരുന്ന ദുർഗന്ധം ചിലർക്ക് ഇഷ്ടപ്പെടില്ല എന്നാലും അത് സഹിച്ച് മഴ പെയ്യുമ്പോൾ വേറൊരു വഴിയില്ലാതെ അവർ ഇതിനകത്താണ് കിടന്ന് വിശ്രമിക്കുന്നത് എന്നതും ഒരു ദുഃഖകരമായൊരു കാര്യമാണ് പിന്നെ കടലിലെ നല്ല എക്സ്പീരിയൻസ് എന്നു പറയുമ്പോൾ കൂടെയുള്ള ആൾക്കാർ എപ്പോഴും ഹെൽപ്പ് ചെയ്യും സഹായിക്കും എന്തെങ്കിലും സംഭവിച്ചാലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലോ എന്തെങ്കിലും നമ്മുടെ ശരീരത്തിലോ നമുക്കെന്തങ്കിലും വയ്യാണ്ടായാലോ അവരോടി വരും അവർ അപ്പോൾത്തന്നെ പറയും റസ്റ്റെടുക്കാൻ പറയും ആവശ്യമുള്ള എന്തെങ്കിലും ഞൊടി വിദ്യയിലൂടെ എന്തെങ്കിലും നമുക്ക് പെട്ടന്ന് മാറാനുള്ള സംഗതികളൊപ്പിച്ച് തരും ഇഞ്ചിയും മറ്റതൊക്കെ വച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരും പിന്നെ നല്ല രീതിയിൽ തന്നെ കെയർ ചെയ്യും പിന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന വേറൊരു സാധനമാണ് ബേക്കറി ഐറ്റംസ് ഈ ഹൽവാ ചിപ്പ്സ് മിച്ചറ് കേക്ക് ഈ സ്പ്രൈറ്റു പോലുള്ള ശീതള പാനീയങ്ങളൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോകും പക്ഷേ ഒരുപാടല്ല കുറച്ച് ഒരാഴ്ച്ചത്തേക്കല്ല വല്ല ഇതിനും അവര് അത് വൈകിട്ടോ അല്ലെങ്കിൽ ഒഴിവു സമയങ്ങളിൽ കഴിക്കാനും ഒക്കെയാണിത് കൊണ്ടുപോകുന്നത് ഒരുപാട് കഷ്ടത്തിലൂടെയാണവർ കടന്ന് പോകുന്നത് എപ്പോഴും മീൻ കിട്ടണമെന്നില്ല എല്ലാ ദിവസവും ഒരുപോലെയുമല്ല